ഞാന് ഫ്ലിപ്കാർട്ടില് ഒരു ഹെഡ്ഫോണ് എൻ്റെ കൂട്ടുകാരി പറഞ്ഞിട്ട് വാങ്ങിയതാണ് അത് ഉപയോഗിക്കാനൊക്കെ നല്ലതാണ് നമ്മള് എവിടെയേലും യാത്രയൊക്കെ ചെയ്യുമ്പോൾ ഉപയോഗിക്കാം ഇങ്ങനെ വെച്ചിട്ട് സുഖമായിട്ട് പാട്ടെല്ലാം കേട്ട് ഇങ്ങനെക്കാ കിടക്കുക പിന്നെ ആരെങ്കിലും വിളിച്ചാലൊക്കെ ബുദ്ധിമുട്ടില്ലാണ്ട് സംസാരിക്കുക പിന്നെ അതിനൊക്കെ ഏറ്റവും നല്ലതാണ് ഹെഡ്ഫോണ്